ഞങ്ങളെ നാട്ടിൽ സാധാരണ സ്ത്രീകൾ ചുവന്ന പൊടിക്കാൻ അങ്ങനെ ഒത്തുകൂടാറില്ല പാക്കറ്റുകളിൽ ഇപ്പോൾ എല്ലാം അവൈലബിളാണല്ലോ പിന്നെ അഥവാ ഉണ്ടെങ്കിലും ഇവർ കടയിൽ നിന്നും വാങ്ങിക്കുന്ന മുളക് നന്നായിട്ട് കഴുകി ഉണക്കിയതിന് ശേഷം ഇവർ അത് കൊണ്ടുപോയി കടയിൽ കടയിൽ നമ്മുടെ ഈ പൊടിക്കുന്ന സ്ഥലങ്ങളുണ്ട് അവിടെ കൊടുത്ത് പൊടിപ്പിക്കുകയാണ് ചെയ്യുന്നത് അത് ചുവന്നമുളകുപൊടി ഉൾപ്പെടെ എല്ലാം അവിടെ അങ്ങനെ പൊടിപ്പിക്കുകയാണ് ചെയ്യുന്നത് അവരിപ്പം ഇവിടെ ഇങ്ങനെ ഒരുമിച്ചുപോയി അവിടെ ഒത്തുകൂടി പൊടിപ്പിച്ച് തിരിച്ച് അവനവൻ്റെ വീടുകളിലേക്ക് മടങ്ങും